ഒരിക്കലും സാധിക്കില്ല കാരണമെന്ന് പറഞ്ഞത് മലയാളികൾ എന്ന് പറയുന്നത് കേരളത്തിനു മാതൃഭാഷ മാത്രമാണ് കാരണം കേരളത്തിൽ മാത്രമായാണ് കൂടുതൽ മലയാളം പറയാറുള്ളത് അതുകൊണ്ടു തന്നെ ഹിന്ദി ഭാഷ എന്ന് പറയുന്നത് ഇന്ത്യയുടെ തന്നെ മാതൃക ഭാഷയാണ് അപ്പോൾ അത് താരതമ്യം ചെയ്യാൻ സാധിക്കുകയില്ല കാരണം മലയാളം ചിലപ്പോൾ നമുക്ക് കേരളക്ക് മനസ്സിലായെന്നു വരാം പക്ഷേ പുറംനാട്ട് പുറം അതായത് അടുത്ത അടുത്ത സ്ഥലങ്ങൾ അതായത് വെവ്വേറെ ജില്ലകളിലേക്കോ വെവ്വേറെ സ്റ്റേറ്റിലേക്ക് നമുക്ക് സംസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഈ മലയാള ഭാഷ അവിടുത്തേക്ക് ഉപകരിച്ചെന്നു വരില്ല കാരണം അവർക്ക് മലയാളം അത്ര പിടുത്തമൊന്നും ഉണ്ടായിരിക്കില്ല ഏത് ഭാഷ എന്നുതന്നെ അവർക്കറിയില്ല അതേ സമയത്ത് നമുക്ക് ഹിന്ദി ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ പോയാലും അത് ഈ ഗൾഫ് രാജ്യങ്ങൾ ആയാലും അതുപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ അല്ല ഇത് ഇന്ത്യയുടെ തന്നെ പല തരം സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ പോലും നമുക്ക് ഹിന്ദി കൊണ്ട് വളരെയേറെ ഉപകാരം തന്നെയാണ് ഉള്ളത് ഇന്നത്തെ കാലത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇത് കേരള തിരുവനന്ത ജോലി ചെയ്യുന്നത് തന്നെ ബംഗാളികളും ആസാം പോലത്തെ അവർ ആസാം അവിടുത്തെ ആളുകളാണ് അവിടെയെല്ലാം ഭാഷ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മലയാളം പോര അതിന് ഹിന്ദി തന്നെ വേണം ഹിന്ദിയെന്ന് പറയുന്നത് നമുക്ക് ജീവിതകാലം ഉടനീളം വേണ്ട ഒരു ഭാഷ തന്നെയാണ് ഹിന്ദി എന്ന് പറയുന്നത് മലയാളം എന്ന് പറയുന്നത് നമ്മുടെ നാടുകളിൽ മാത്രം സംസാരിക്കുകയും ഒതുങ്ങുകയും ചെയ്യുന്ന ഒരു ഭാഷ കൂടെയാണ് മാത്രം നമുക്ക് എടയ് പോയാൽ ഏത് പ്ലേസിൽ പോയാലും നമുക്ക് മലയാളികളെ കാണാൻ സാധിക്കുന്നത് എന്നല്ലാതെ നമുക്ക് യാതൊരു വിധത്തിലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോളോ മറ്റുള്ള കാര്യങ്ങളിലോ ഹിന്ദി അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ കഷ്ടപ്പെടുക തന്നെ ചെയ്യും ഹിന്ദി ഹിന്ദി തന്നെയാണ് അത് ഇന്ത്യയുടെ മാതൃഭാഷ കൂടെയാണ് ഇന്ത്യയുടെ മാതൃഭാഷ എന്ന് പറയുന്നത് ഹിന്ദി ഭാഷയാണ് മാത്രം അതുമല്ലാതെ കേ കേരളത്തിൻ്റെ മാതൃഭാഷയാണ് മലയാളമെന്ന് പറയുന്നത് അതുപോലെതന്നെ മലയാള മലയാളം കേരളത്തിലുടനീളം ഹിന്ദിക്ക കേരളമെന്നു പറയുന്നത് മലയാളം മാത്രമല്ല ഹിന്ദിയും കന്നടയും തുളുവും മറ്റുള്ള എല്ലാ ഭാഷകളും കൊണ്ട് അനുഗ്രഹീതമായ ഒരു നാടു കൂടിയാണ് കേരളം എന്നു പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കാറുള്ളത് മലയാള ഭാഷയാണ് പക്ഷേ ഇന്ത്യയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതൽ പേരും സംസാരിക്കാറുള്ളത് ഹിന്ദി ഭാഷയാണ് നമുക്കെവിടെ എന്തൊരാവശ്യത്തിനും ഹിന്ദി അനിവാര്യം തന്നെയാണ് ഏത് ജോലി ചെയ്യുമ്പോഴും ഏത് ഹോട്ടൽ ജോലികൾ ചെയ്യുമ്പോഴും മറ്റുള്ള സംസ്ഥാനങ്ങൾ ചിലപ്പോൾ നമുക്ക് ജോലി ചെയ്യുമ്പോൾ ചെയ്യുമ്പോളും നമുക്ക് ഈ മാതൃഭാഷയെ ആശ്രയി ഈ ഹിന്ദി ഭാഷ നമുക്ക് ആശ്രയിക്കേണ്ടി വരും അത് ജീവിതത്തിലുടനീളം വേണ്ട ഒരു ഭാഷ കൂടെ തന്നെയാണ് ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടൊരു ഭാഷ കൂടിയാണ് ഹിന്ദി ഭാഷയെന്ന് പറയുന്നത് ഭാഷയെ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാ കാരണം മളയാളവും ഹിന്ദിയുമായി താരതമ്യം ചെയ്യാൻ ഒരിക്കലും സാധിക്കുകയില്ല കാരണം ഹിന്ദി ഹിന്ദി ആണ് മലയാളം മലയാളമാണ് ഹിന്ദി ഹിന്ദി കൊണ്ട് പലതര പലതരമായ ആവശ്യങ്ങൾ നിറവേറാൻ സാധിക്കും അതുപോലെ തന്നെ മലയാളം കൊണ്ട് സാധിക്കുന്ന് കേരളത്തിൽ മാത്രമായിരിക്കാം എന്നാലും ഹിന്ദി ഹിന്ദി നമുക്ക് ഉടനീളം വേണ്ട ഒരു ഭാഷ കൂടിയാണ് നമുക്കിപ്പോൾ കേ ഇതിപ്പോൾ കേരളം വിട്ട് അന്യസംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അതായത് മറ്റേ തമിൾനാട് മറ്റേ ആന്ധ്ര പ്രദേശ് ഉത്തർ പ്രദേശ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം പോകുമ്പോഴും നമുക്ക് ഹിന്ദി പഠിച്ചു വയ്ക്കൽ അനിവാര്യം തന്നെയാണ് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഭാഷകളെ പോലെ വലി അതിനുമെല്ലാം മുകളിൽ പ്രധാനം തന്നെയാണ് ഹിന്ദി ഭാഷ പഠിക്കുക എന്നുള്ളത് ഹിന്ദി ഭാഷ നമുക്കുടനീളം നമുക്ക് സഹായകരമായിരിക്കും ഏത് മേഖലയിൽ എടുത്തു നോക്കിയാൽ നോക്കുകയാണെങ്കിലും ഹിന്ദി ഭാഷ നമുക്ക് വളരെ വലുതായി തന്നെയാണ് ഈ നിലകൊള്ളുന്നത് കാരണം ഏത് ഷോപ്പുകളിലും എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ആളുകളെ കാണാം ഹിന്ദി പടി ഹിന്ദി ഉ ഹിന്ദി സംസാരിക്കുന്ന ഹിന്ദി ഭാഷയുള്ള എത്രയോ ആളുകളെ നമുക്ക് കാണാം പക്ഷേ നമുക്ക് അവർ സംസാരിക്കുന്നത് ഒരു ഭാഷ നമുക്ക് മനസ്സിലാകണമെന്നില്ല അതിന് നമ്മൾ ഹിന്ദി പഠിക്കുക തന്നെ വേണം കാരണം അവർ ഹിന്ദി സംസാരിക്കുന്ന അവരുടെ ഭാഷയാണ് നമ്മുടെ മലയാളം അവർക്ക് സംസാരിച്ചാൽ എന്ത് മനസ്സിലാവുകയില്ല അതുകൊണ്ട് മലയാളം പ്രധാന ഭാഷ തന്നെയാണത് പോലെ അതിനേക്കാൾ അതിനും മുകളിലാണ് ഹിന്ദി ഭാഷയും ഉള്ളത് ഹിന്ദി നമുക്ക് ഒരു മലയാളം അറിയണം അതുപോലെ തന്നെ അതിലധികം ഹിന്ദി ഭാഷയും നമ്മൾ പഠിച്ചിരിക്കേണ്ടത് നല്ല നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ കൂടുതലായൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനില്ല ഭാഷ നമുക്കെല്ലാ ഭാഷയും അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ് അതിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഭാഷ ഹിന്ദിയും മലയാളവും കൂടിത്തന്നെയാണ്